കുഴല്ക്കിണർ ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് കുഴല്ക്കിണർ വളരെ കുറവായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് വളരെ ജലം ലഭ്യതയുള്ള സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് സാധാരണ ഞങ്ങളുടെ വീടുകളിലൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഒന്പത് കോല് താഴ്ച്ചയില് ചെല്ലുമ്പം നമുക്ക് വെള്ളം ലഭ്യമാണ് വളരെ ശുദ്ധമായ വെള്ളമാണ് അത് നമുക്ക് നേരിട്ട് തന്നെ കോരി കുടിക്കാവുന്ന പാകത്തിലുള്ള നല്ല വെള്ളമാണിവിടെ ലഭിക്കുന്നത് പിന്നെ കുഴല്ക്കിണർ ഇവിടെ പാറയൊക്കെയുള്ള സ്ഥലങ്ങളിലാണത് മെഷന് വെച്ച് ഇങ്ങനെ വളരെ ആഴത്തിൽ ഒന്പത് കോലിലൊക്കെ വെള്ളം കിട്ടുന്ന സ്ഥലത്ത് വെള്ളം കിട്ടാത്ത ഏരിയായിൽ പത്ത് നാനൂറും അടിയൊക്കെ താഴെ താഴ്ച്ചയിലാണ് നമ്മൾ കുഴല്ക്കിണർ മെഷ്യന് വെച്ച് കുഴിച്ചെടുക്കുന്നത് സാധരണ കിണർ നമ്മൾ പണിക്കാർ കൊണ്ട് കൈ കൊണ്ട് മണ്ണെടുത്ത് സാധാരണ കിണർ ഒന്പത് കോല് പത്ത് കോലൊക്കെ ആവുമ്പോൾ നമുക്ക് വെള്ളം ലഭിക്കും ആ വെള്ളം നമ്മൾ മോട്ടറുപയോഗിച്ചാണ് കുഴല്ക്കിണറിലെ വെള്ളം മോട്ടറുപയോഗിച്ച് പമ്പ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രദേശത്ത് എല്ലാ വീടുകളിലും തന്നെ കുഴല്ക്കിണറല്ല സാധാരണ കിണറുകൾ ഉണ്ട് പിന്നെ പഞ്ചായത്ത് വക വലിയ കിണറുണ്ട് ഈ എന്ന വീടും സ്ഥലങ്ങളും ഒന്നും ഇല്ലാത്തവര്ക്ക് ഉപയോഗിക്കാനായിട്ട് പൊതുവായിട്ട് അവിടെ വെള്ളം കോരാനായിട്ട് തോട്ടീം കപ്പീം ഓക്കെയുണ്ട് അങ്ങനെ കോരിയെടുത്ത് ആള്ക്കാരൊക്കെ കോരിക്കൊണ്ട് പോവുകേം അവിടെ വന്ന് അവർ കുളിക്കാനും ഒക്കെ അവർ അവിടെന്ന് കോരിയെടുത്ത് ഉപയോഗിക്കുവൊക്കെ ചെയ്യും ഞങ്ങളുടെയൊരു പ്രദേശത്ത് നമുക്ക് വെള്ളം ധാരാളം ലഭ്യതയുള്ളത് കൊണ്ട് സാധാരണ കിണറുകൾ അല്ല വീടുകളിലും തന്നെ ഉപയോഗിക്ക്യാണ് പതിവ് അല്ലാതെ കുഴല്ക്കിണറിന്റെ ആവശ്യം അങ്ങനെ ഉള്ളൊരു മേഖലയല്ലെങ്കില് പോലും ചില സ്ഥലങ്ങളിൽ പാറ കട്ടിയായിട്ടുള്ള സ്ഥലങ്ങളിൽ പിന്നാ കുഴല്ക്കിണർ കുത്താറുണ്ട് അത് നല്ല അവര്ക്ക് വെള്ളം ശുദ്ധമായ വെള്ളം ആണെങ്കിലും ഇച്ചരെ കട്ടി കൂടിയ വെള്ളമാണെന്നിങ്ങനെ പറഞ്ഞ് നമുക്ക് കേട്ടിട്ടുണ്ട്